ആ ജെന നമുക്ക് കഞ്ഞിക്കുഴി വരെ ഒന്ന് പോവണമായിരുന്നു ആ കഞ്ഞിക്കുഴി പോവാൻ എത്ര രൂപ ആവും ചേട്ടാ ചാർജ് ആവും അല്ലേ ആ ചിലപ്പോൾ അവിടെ ഒരു ഒരു മണിക്കൂറ് വെയ്റ്റിങ് കാണുമായിരിക്കും ഇവിടെ ടൗണിൽക്കൂടെ പോവാനാവുമോ ടൗണിൽക്കൂടെ പോയാൽ ഇപ്പം ലുലു മാളൊക്കെ വന്നതുകൊണ്ട് അവിടെ അതിൽ പോകാനൊക്കെ പോയാൽ നമുക്ക് ഈ അപ്പുറം വഴി പോകാൻ പറ്റും നമുക്ക് അങ്ങനെ കഞ്ഞിക്കുഴി ഈ പൂവംന്തുരുത്ത് അതിലൊക്കെ കയറിപ്പോകാൻ പറ്റും അതിലെ അപ്പം നേരെ നമുക്ക് കഞ്ഞിക്കുഴി ചില നേരെ കഞ്ഞിക്കുഴി ചെല്ലാമല്ലോ

ആ അത് നമുക്ക് എങ്ങനെയെങ്കിലും പോവണമല്ലോ അത് പോവാതിരിക്കാൻ പറ്റത്തില്ല അത് ലുലു മാൾ ഉള്ളതുകൊണ്ട് ലുലു മാള് വന്നതുകൊണ്ട് ഇതിൽ പാസഞ്ചറ് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ മ് മൂന്ന് പേർ ആ ഒരു ഒരു ഒരു അതൊരു നമ്മുടെയൊരു ബന്ധു വീടാ ആ വീട് ചെല്ലുക അവിടൊരു ഫങ്ഷനുണ്ട് ആ ഫങ്ഷന് സംബന്ധിക്കുക തിരിച്ച് വരിക കുഴപ്പം ഒന്നും ഇല്ല അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറ് ഉള്ളൂ അത് ഒന്നും ഉണ്ടാകത്തില്ല വരാൻ പറ്റും വേറെ ഞാൻ വേറെ വണ്ടികളൊക്കെ നോക്കി ഓരോ വണ്ടി അടുത്ത് മറ്റേ അപ്പുറത്തെ സ്റ്റാൻഡ് ഒന്നും വണ്ടി ഒന്നും ഇല്ല ഈ സ്റ്റാൻഡ്ൽ ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ ആ അന്നേരം ഇപ്പം രണ്ട് ഓട്ടാ ഇത് ചേട്ടാ

അ നമ്മളപ്പോൾ ഒരു സാധാരണക്കാരനല്ലേ സാധാരണക്കാരനൊക്കെ അല്ലേ അപ്പം അങ്ങനെ ആ ഏതായാലും ചേട്ടാ നമുക്ക് പോകാം ഏതായാലും നമുക്ക് പോകാം എന്താ വെച്ചാലേ പോവാതിരിക്കാനൊക്കത്തില്ല പോയിട്ട് വരാം ഇത്